കുറേ ദിവസങ്ങൾക്കു മുമ്പു ഞാനൊരു പ്രമുഖ ഇൻറർനാഷണൽ ഷൂ ബ്രാൻഡിൻ്റെ ഔട്ട്ലെറ്റില് നിന്നും ഒരു ഷൂ വാങ്ങിക്കുകയുണ്ടായി അത്യാവശ്യം വിലയുള്ള ഒരു തന്നെയായിരുന്നു അത് കാണാനും കൊള്ളാമായിരുന്നു ഒരു മൂന്നര വർഷത്തോളം നല്ല രീതിക്കു ഞാൻ അതിനെ ഉപയോഗിച്ചിരുന്നു എന്നാലും അതിനൊരു തരത്തിലുള്ള കംപ്ലയിൻറ്റും വന്നില്ലായിരുന്നു ഞാൻ ചിലവാക്കിയ ആ പൈസ എനിക്കു നല്ല വര്ത്തായിട്ട് എനിക്കു തോന്നിയിരുന്നു കാരണം അത്രേ നാൾ ഒരു പറയത്തക്ക കംപ്ലെയിന്റും ഉണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് നാൾ മുമ്പ് സെയിം ബ്രാൻഡിൻ്റെ അതേ നിറത്തിലും അതേ സൈസിലുമുള്ള ഒരു ഷൂ ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും ഓർഡർ ചെയ്യുകയുണ്ടായി എന്നാൽ എനിക്കു കിട്ടിയ പ്രോഡക്റ്റ് വളരെ മോശമായതും ക്വാളിറ്റി വളരെ കുറവായതും ആയിരുന്നു ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞില്ല അതു കേടുവന്നു